ആ ചേട്ടാ എൻ്റെ കയ്യിൽ കയ്യിൽ പൈസ ഇല്ല എൻ്റെ ഫോണിലാണ് പൈസ ഉള്ളത് ചേട്ടൻ്റെ യു പി ഐ ഡി തരുവാണെന്നുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ഫോണിൽ നിന്ന് ചേട്ടൻ്റെ ഫോണിലോട്ട് പൈസ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് പറ്റും കാരണം എൻ്റെ കയ്യിൽ ലിക്വിഡ് ആയിട്ട് എടുക്കാൻ ആയിട്ട് ഒരു രൂപ പോലുമില്ല ചേട്ടൻ അത് തരുവാണെന്നുണ്ടെങ്കിൽ അത് അത്ര നല്ല കാര്യമായിരിക്കും യു പി ഐ ഡി വഴി ട്രാൻസ്ഫർ ചെയ്യാൻ ഇവിടെയാണെങ്കിൽ നെറ്റും നല്ല സ്പീഡ് ഉണ്ടല്ലോ ചേട്ടാ അപ്പോൾ അതിനനുസരിച്ച് പെട്ടെന്ന് പൈസ ട്രാൻസ്ഫർ ആവും ചേട്ടന് ആവശ്യമാണെങ്കിൽ അത് പോയി നമുക്ക് എ ടി എമിൽ നിന്ന് എടുക്കാവുന്നതേ ഉള്ളൂ അത്രയും സിമ്പിൾ ആണ് കാര്യം അല്ലാണ്ട് എൻ്റെ കയ്യിൽ ലിക്വിഡ് ആയിട്ട് തരാനൊന്നുമില്ല ചേട്ടൻ്റെ യു പി ഐ ഡി ഒന്ന് പറയുകയാണെങ്കിൽ ഞാൻ അതിലോട്ട് ഒന്ന് അയയ്ക്കാം അല്ലെങ്കിൽ ഫോൺ നമ്പർ ആയാലും മതി അതും ഇല്ലെങ്കിൽ സ്കാനർ ഉണ്ടാവുമല്ലോ ചേട്ടൻ്റെ ഫോണിൽ സാധാരണ ഞങ്ങളെ നാട്ടിലൊക്കെ ആണെങ്കിൽ എല്ലാ വണ്ടികളിലും സ്കാനർ ഉണ്ടാവും അല്ലെങ്കിൽ അവർ ഫോണിലാണ് മൊബൈൽ നമ്പർ ആണ് തരുന്നത് അപ്പം ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെ തരാം എന്നാണ് വിചാരിച്ചത് ഇപ്പോൾ ചേട്ടൻ്റെ ഫോണിൽ ജി പേ ഉണ്ടോ ചേട്ടാ ഉണ്ടെങ്കിൽ ഒന്ന് അതിലോട്ട് പൈസ അടയ്ക്കാൻ പറ്റുമല്ലോ ഇല്ലെങ്കിൽ ഇപ്പോൾ ഒന്ന് തുടങ്ങാൻ പറ്റുമോ ഇപ്പം തുടങ്ങിക്കഴിഞ്ഞാൽ ചേട്ടനും അതിൽ ഉപയോഗം ഉണ്ടാവും ഇത് തുടങ്ങുന്നവർക്ക് ബോണസ് ഒക്കെ കിട്ടുന്നുണ്ട് പൈസ ഇപ്പോൾ ചേട്ടൻ എൻ ഞാൻ എൻ്റെ ഇത് ചേട്ടൻ്റെ വാട്സാപ്പിലേക്ക് ഇത് ഷെയർ ചെയ്യുവാണെന്ന് ഉണ്ടെങ്കിൽ എനിക്ക് ഒരു മുന്നൂറ് രൂപ കിട്ടും ആ മുന്നൂറ് രൂപയും കൂടെ ഞാൻ ചേട്ടന് തരാം ഇപ്പോൾ ഇപ്പോഴത്തെ സിറ്റുവേഷൻ അങ്ങനെ ആയി പോയതുകൊണ്ട് ഞാൻ ആ മുന്നൂറും പ്ലസ് ചേട്ടൻ്റെ വണ്ടി ചാർജും കൂടെ ചേട്ടന് തരാം അതാകുമ്പോൾ ചേട്ടന് ലാഭമല്ലേ ആ അക്കൗണ്ടിൽ നിന്ന് ചേട്ടൻ പൈസ എടുത്താൽ മതി ഇത് എങ്ങനെയാണ് അയയ്ക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തരാം എനിക്ക് അധികം തിരക്കൊന്നുമില്ല എനിക്ക് നാളെ ഡ്യൂട്ടിക്ക് കയറിയാൽ മതി അതുകൊണ്ടാണ് പറഞ്ഞത് ചേട്ടൻ ഇന്നൊന്ന് ഒന്ന് സഹകരിക്കണം കാരണം എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒരു രൂപ പോലും കയ്യിൽ ലിക്വിഡ് ആയിട്ട് എടുക്കാൻ ഇല്ല അതുകൊണ്ടാണ് കേട്ടോ ചേട്ടാ അപ്പോൾ ചേട്ടന് ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ അതുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു മൊബൈൽ ഫോണിലൊരു ജി പേ തുടങ്ങാവുന്നതേ ഉള്ളൂ പ്ലസ് എൻ്റെ മുന് ആ കിട്ടുന്ന മുന്നൂറ് ചേട്ടന് ഞാൻ അയച്ചേക്കാം അങ്ങനെയാവുമ്പോൾ ഇപ്പോൾ വണ്ടി ചാർജ് മുന്നൂറ് എങ്കിൽ മുന്നൂറും കൂടെ ആകുമ്പോൾ ചേട്ടന് എൻ്റെ അറുനൂറ് രൂപ കിട്ടത്തില്ലേ അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒന്ന് ചേട്ടാ ഒന്ന് സഹകരിക്കാമോ അത് അല്ലാണ്ട് പറ്റില്ല ഇപ്പോൾ ഞാൻ ഈ രാത്രിക്ക് ആരുടെ അടുത്തു പോയി കടം ചോദിക്കാനാണ് ആര് തരും അല്ലെങ്കിൽ എനിക്ക് എനിക്ക് അറിയാത്ത ലൊക്കേഷനും കൂടെയാണ് ചേട്ടന് ഒന്ന് സഹകരിക്കണം ഏട്ടാ പറ്റാത്തതുകൊണ്ടാണ്